അതെ പറഞ്ഞോളൂ ആ പറഞ്ഞോളൂ സാറേ ഓക്കെ ഇത് എന്നത്തേക്കായിരുന്നു ഓക്കെ ഓക്കെ നിങ്ങൾ ഏത് റേറ്റ് ഏത് റേറ്റ് റേഞ്ചിലുള്ള പൂക്കളാണ് വേണ്ടിയതെന്നൊന്നും കൂടെ അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു കാരണം ഞങ്ങൾ റോസാപ്പൂക്കൾ യൂഷ്വലി കല്ല്യാണത്തിനൊക്കെ വെക്കുന്നത് പക്ഷേ നിങ്ങൾ ഈ ഹൈ ക്ലാസ്സ് ഇതായതുകൊണ്ട് പറയുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് ഞങ്ങൾക്ക് ഓർക്കിഡ്സും മറ്റേ ടൈപ്പൊക്കെ ഉണ്ടങ്ങനെ കളർ സെലക്ഷനിലും ഏത് ടൈപ്പ് പൂവാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ റേറ്റ് വ്യത്യാസം ഒക്കെ വരും ഓക്കെ ഓക്കെ മനസ്സിലായി മനസ്സിലായി ഓക്കെ ഇവിടെ നിന്നല്ല ഞങ്ങൾ യൂഷ്വലി തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ആന്ധ്രയിൽ നിന്നോ ഇമ്പോർട്ട് ചെയ്യുന്നത് അതിന് അയിൻ്റേതായ ടൈമെടുക്കാറുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഈ വൺ വീക്ക് ടൈം പറഞ്ഞേക്കുന്നത് എന്തോരം പോസിബിളാണ് ഞങ്ങൾക്ക് നോക്കണം എന്നുണ്ട് പക്ഷേ കുഴപ്പം ഇല്ല ഞങ്ങൾക്ക് ഇതൊരു പ്രൈവറ്റ് ഓഡർ ആയതുകൊണ്ട് ഞാൻ നന്നായിട്ട് നോക്കാൻ പറ്റും ആ അതിന് മുമ്പ് നിങ്ങൾക്ക് ഈ കളറ് എന്തെങ്കിലും സ്പെസിഫിക്കേഷൻസ് ഉണ്ടായിരുന്നോ ഇന്ന കളറ് വേണം ഇന്ന ടൈപ്പൊക്കെ വേണം എത്ര കളേഴ്സ് വേണം അങ്ങനെ വല്ലതും

ഓക്കെ നിങ്ങൾക്ക് ഇതിനായിട്ട് ഒരു ബഡ്ജറ്റ് വല്ലതും സെറ്റ് ചെയ്തിരുന്നോ ഓക്കെ ആ ഞാൻ ചോദിക്കാൻ കാര്യം അരളിയുടെ വില ഇച്ചിരി കൂടുതലാണ് ഇപ്പോൾ ഉള്ളതിനേക്കാളും ഡിമാൻ്റ് വരുന്നതുകൊണ്ടിച്ചിരി കൂടുതലാണ് ഓക്കെ പക്ഷേ നിങ്ങൾ മുല്ലപ്പൂവിൻ്റെ കാര്യം വല്ലതും ചോദിച്ചിട്ടുണ്ടോ മുല്ലപ്പൂ വേണോ ഓക്കെ ഹിന്ദു വെഡ്ഡിംഗ് ഹിന്ദു വെഡ്ഡിംഗായതുകൊണ്ട് പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് വന്ന് ചോദിച്ചതാണ് ആ ആ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് അത് ഈ മുല്ലപ്പൂ എത്ര ഈ മീറ്ററായിട്ട് വേണോ വല്ലം നിങ്ങൾക്കൊരു കണക്ക് പറയാൻ പറ്റുമോ ഇപ്പോഴേ ഓക്കെ ഓക്കെ ഞാൻ ഈ പറഞ്ഞ ഏകദേശം റേറ്റ് വച്ച് ഞാൻ ഒരു എസ്റ്റിമേറ്റ് നിങ്ങൾക്ക് അറിയിച്ച് ഞാൻ ഈ നമ്പറ് തന്നെ വാട്ട്സ്ആപ്പുണ്ടോ നിങ്ങളുടെ ഓക്കെ ഞാൻ ഈ നമ്പറ് നിങ്ങൾക്കിതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റായിട്ട് ഈ പറഞ്ഞ കണക്ക് വച്ച് ഞാൻ എത്രയും വേഗം നിങ്ങളെ അറിയിക്കാം നിങ്ങൾ അത് വച്ച് കാര്യങ്ങളോട്ട് നീങ്ങാൻ പറ്റും ഓക്കെ ശരി താങ്ക് യൂ